കണ്ണൂർ ജില്ലയിലെ കാലാവസ്ഥ ഇപ്പോൾ നല്ല മഴയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് വെള്ളപ്പൊക്കം കണ്ണൂരിൻ്റെ ഉൾഭാഗങ്ങളിൽ കൊട്ടിയൂർ പേരാമ്പ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളപ്പൊക്കം അങ്ങനെ മണ്ണൊലിപ്പ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ കഴിഞ്ഞവർഷം ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അല്ലെങ്കിൽ മഴ കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നല്ല മഴ കിട്ടുന്നുണ്ട്